അതെ ഞാൻ നിങ്ങളുടെ കൈയിൽ നിന്നും ആദ്യമൊരു സാരി എടുത്തിട്ടുണ്ടായിരുന്നു ആ സാരി വളരെ നല്ലതായിരുന്നു ഉം നമ്മുടെ പൈസക്കൻസരിച്ച് അതിലേറെ അപ്പോൾ കരം കാണിക്കുന്ന നല്ല ഭംഗിയുള്ള സാരിയായിരുന്നു ആ സാരി ഒരുപാട് കാലം നീണ്ട് നിന്നിരുന്നു അതിൻ്റെ പുള്ളികൾക്കും കളറുകൾക്കൊക്കെ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല നല്ലതായിരുന്നു അത് വെച്ചിട്ട് ഞാനെൻ്റെ കൂട്ടുകാരിക്ക് അടത്ത് പറഞ്ഞു വീണ്ടും അതുപോലൊരു സാരി നിങ്ങളുടെ അടുത്ത് കണ്ടു അതുകോണ്ടും ഓഡറ് ചെയ്തു രണ്ടാമത് അതെനിക്ക് വന്നപ്പോൾ പഴയ സാരിൻ്റ അത്രയ്ക്ക് നിലവാരം ഉണ്ടായിരുന്നില്ല അത് ഒര് അലക്കലില് തന്നെ വേഗം അതിൻ്റെ നിറം മങ്ങി സാരി ചുരുണ്ട് കൂടി അതുപോലെ തന്നെ അതിൻ്റെ കുപ്പായത്തിനിലെ തുണി അതില് പറഞ്ഞ അളവ് ഉണ്ടായിരുന്നില്ല അതത്രയും കുറവായിരുന്നു പിന്നെ അതിന് വേണ്ടിയിട്ട് വേറെ അതിന് ചേരുന്ന തുണിയെടുത്ത് തുന്നേണ്ടതൊക്കെയായിട്ട് വന്നു അപ്പോൾ അത് വളരെ മോശമായി